ഫെബ്രുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ആറ് രണ്ടായിരത്തി അഞ്ച് ജാനുവരി നാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത്